ഹലോ മോളെ ദീപ്തി പിന്നെ മോൾ പാൻ കാർഡ് ന് അപേക്ഷ കൊടുത്തിട്ട് മോൾക്ക് കിട്ടിയായിരുന്നോ അപ്പം എന്തൊക്കെ ഡീറ്റെയിൽസാ മോളെ പാൻ കാർഡ് കിട്ടാനായിട്ട് വേണ്ടത് എന്തൊക്കെയാ അത് എന്തൊക്കെ നമ്മൾ ഡോക്യൂമെൻസ് എങ്ങാനും കൊണ്ടുപോകണം ആധാർ കാഡ് വേണോ പിന്നെ റേഷൻ കാഡോ പിന്നെ വേറെ നമ്മുടെ ഐ ഡി കാഡോ എന്തെങ്കിലും വേറെ രേഖകളൊക്കെ നമ്മൾ ഈ പാൻ കാർഡ് കിട്ടാനായിട്ട് കൊണ്ടുപോകണോ പാൻ കാഡ് കിട്ടാനായിട്ട് നമ്മൾ എവിടെയാ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് മോൾക്ക് പാൻ കാർഡിന് അപേക്ഷിച്ചിട്ട് എത്ര ദിവസം കഴിഞ്ഞാ വന്നത് അത് നമ്മൾ എന്തൊക്കെ രേഖകൾ അന്ന് കൊണ്ട് പോകുന്നു പാൻ കാഡിന് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം അതൊക്കെ എന്തൊക്കെ രേഖകൾ നമ്മളതിന് കൊണ്ട് പോകേണ്ടത് അത് എവിടെ എന്ന് എപ്പോൾ എവിടെ കൊണ്ട് കൊടുക്കണം അത് നമുക്ക് എന്ന് തിരികെ എത്ര ദിവസത്തിന് ശേഷം അത് കിട്ടും അതിൻ്റെ നമ്മൾ ആരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് എങ്ങനെയൊക്കെ മോൾക്ക് കിട്ടി എന്ന് ഒന്ന് വിശദികരിച്ച് പറഞ്ഞ് തരണം കേട്ടോ ഓക്കെ